അതേയതേയതേ പറയൂ ഓക്കേ ഓക്കെ ഏതു തരത്തിലുള്ള ഫുഡാണ് സാർ ഉദ്ദേശിക്കുന്നത്

വെജിറ്റേറിയൻ നോൺവെജിറ്റേറിയൻ അങ്ങനെ വല്ലതുമുണ്ടോ ഓക്കേ സീ ഫുഡ് പറ്റുമല്ലോ സർ ഓക്കെ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഓക്കേ ഞാൻ മെനു സാർക്ക് മെനു സർ പറഞ്ഞാൽ അത് അതുപോലെ സെറ്റാക്കിത്തരാം ഓക്കെ രാവിലെ ഞങ്ങൾ ബുഫേ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സർ ഉച്ചയ്ക്ക് നോൺവെജ് കാണത്തില്ല അപ്പോൾ അപ്പം രാത്രി അപ്പം ആ നാലുപേർക്ക് എന്താണ് സർ വയ്ക്കേണ്ടേത് ഓക്കേ ഓക്കേ ഓക്കേ

ഒറ്റ ദിവസത്തേക്കല്ലേ ഓക്കേ അപ്പം അപ്പം സീ ഫുഡൊക്കെ എപ്പോഴാ സർ വേണ്ടത് ഓക്കെ രണ്ടാമത്തെ ദിവസം നൈറ്റ് സീ ഫുഡ് രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ട്രഡീഷണൽ തന്നെ എത്ര മെമ്പേർസാ സർ വരണത് പതിനഞ്ചുപേർക്ക് ടോട്ടല് ട്വന്റി തൗസൻഡ് റുപ്പീസ് വേണ്ടിവരും സർ ഹോട്ടലിന്റെ ലൊക്കേഷൻ കോഴിക്കോട് പുതിയസ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്